നമുക്ക് ഇന്നിത്തരത്തിൽ വീട്ടിൽ വിഷുരസ സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞുള്ള ഒരു സമയത്ത് കുറച്ച് സമയമെങ്കിലും നമ്മൾ വ്യയാമെന്നോണം നമ്മൾ കായ് കനികളക്കെ നട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ഫലം എടുക്കുന്നതാണ് ഇന്നത്തെ ഏറ്റോം ബുദ്ധിമുട്ടായ കാര്യങ്ങൾ കാരണം നമ്മൾ വളരെ അധികം കഷ്ടപ്പെട്ട് ഒരു വർഷത്തോളം നമ്മൾ മാന്യ നട്ട് നനച്ച് വളമിട്ട് ചെയ്തതെല്ലാം കഴിഞ്ഞ് ഒരു അതിൻ്റെ ഫലം വന്ന സമയത്ത് ആ ഫലം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഇടനിലക്കാരുടെ വിലയില്ലായ്മ്മയും അതുപോലെ തന്നെ വാഹന ലഭ്യതയും ഒക്കെ കുറവായ കാരണം ചിലവേറി വരുന്നു അതുകൊണ്ട് ഇന്ന് മാർക്കറ്റാണ് ഏറ്റോം പ്രശ്നമായിട്ടിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് കൃഷിക്കാരൻ കൃഷിക്കാരൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ യഥാർഥത്തിൽ ചെയ്യേണ്ടത് സർക്കാർ വേണ്ട സൗകര്യങ്ങളക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഒത്തിരി വകുപ്പുകളൊക്കെ കാർഷിക രംഗത്തുണ്ട് പക്ഷേ അതൊന്നും കർഷകർക്ക് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ സഹായകരമായ പ്ര പ്രവർത്തനങ്ങളൊക്കെ തുലോം തുലോം തുച്ഛമാണ് കാർഷികമായ ഓഫീസുകളും സർക്കാർ ഫണ്ട് ഒത്തിരിയുണ്ട് പക്ഷേ അതിനകത്ത് അഞ്ച് ശതമാനം പോലും യഥാർഥ കർഷകൻ്റെ അഭിവൃതിക്ക് എത്തുന്നില്ല ഇതാണ് സത്യമായ കാര്യം